ഞങ്ങളുടെ സ്ഥലത്തു നിന്ന് രണ്ടോ മൂന്നോ പേർ മാത്രമേ ഉള്ളൂ അന്താരാഷ്ട്ര തലത്തില് സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ചിട്ട് ടീമുകളിൽ അംഗമായിരിക്കുന്ന ആൾക്കാർ അതും കുറവാണ് ഒരൂ നൂറ്റിമുപ്പത് കോടി ജനങ്ങളുള്ള ഇന്ത്യ എന്ന രാജ്യത്തിൽ നിന്ന് ഒരു ദേശത്ത് രണ്ടോ മൂന്നോ ആളെന്നു പറയുന്നതിൽ ഭയങ്കരം മ്ലേച്ഛതയാണുള്ളത് അതായത് നമ്മളെന്താ ഒരു ഇൻ്റർനാഷണൽ അതായത് വിദേശ രാജ്യങ്ങളിൽ ഒക്കെ നടക്കുന്ന വലിയ വലിയ കളികളിൽ നമുക്ക് പങ്കെടുക്കാൻപോലും ആകുന്നില്ല കാരണം നമ്മൾ എന്താ സ്പോട്സിൻ്റെ അനാസ്ഥയാണ് ഈ കാണിക്കുന്നത് ഇതിൽ വലിയ പ്രതിഷേധമാണ് പലരും ഉയർത്തുന്നതും എന്നാൽ ഈ അധികാരികൾ ഇതിലൊന്നും ഒരൂ ഒരു മുൻകരുതുകൾ ഒരു ആക്ഷനു ഒന്നും എടുക്കുന്നില്ല കാരണം അവർക്ക് വേറെ പലതിലുമാണ് ചിന്തയും അത് വെറും തലമുറയുടെ കായികത്തെ അവർക്ക് വളർത്തിയെടുക്കണമെന്നൊന്നും വലിയ ആഗ്രഹങ്ങളില്ല എന്നാൽ ഈ ഒരു സമയത്ത് ചെറിയ ചെറിയ മാറ്റങ്ങൾ കണ്ടു വരുന്നുണ്ട് ചിലയിടങ്ങളിൽ എന്നാലും ചില ഇടങ്ങേറ് വലിയ അതായത് ഗ്രാമപ്രദേശങ്ങളിലിപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല പോയി പോയി പിന്നേ പല പ്രശ്നങ്ങളാൽ ഇപ്പോഴും സ്ഥലം അല്ലെങ്കിൽ കളിസ്ഥലങ്ങളോ ഒന്നുമില്ലാത്തതിനാൽ കുട്ടികൾക്ക് ആഗ്രഹമുണ്ടെങ്കിലും കളിക്കാനുള്ള സാഹചര്യം കിട്ടുന്നില്ല കിട്ടാത്തത്തതിൻ്റെ പ്രധാന കാരണമെന്നു പറയുന്നത് അത് ആൾക്കാർക്ക് ആർക്കാരിലുള്ള ചിന്താഗതിയാണ് അവർക്കിതിനോടുള്ള ആഗ്രഹങ്ങളല്ല ഇതിനെ സ്പോട്സെന്ന രീതിയിലുള്ള സ്പോട്സിനോട് ആർക്കും താൽപ്പര്യമില്ല അവർക്കതിൽ ഒരു ജീവിതമാർഗ്ഗം കണ്ടു പിടിക്കാൻ പേടിയാണ് അവർ മറ്റു പലതിലേക്കാണ് ചിന്തിക്കുന്നത് അതിൽ ഉണ്ടാകുന്നു പറഞ്ഞാൽ കുട്ടികളുടെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ അവരുടെ ആരോഗ്യ സ്ഥിതിയും ഒന്നും വളർത്തിയെടുക്കാൻ നമുക്കാകുന്നില്ല ഒരു ആരോഗ്യമുള്ള തലമുറയെ നമുക്ക് വാർത്തെടുക്കാൻ സാധിക്കുന്നില്ലയെന്ന് എന്നുള്ളതാണ് നമുക്കിതിൽക്കൂടി മനസ്സിലാക്കാൻ പറ്റുന്നത് എല്ലാവരും